ഹലോ ആ അതെ അതെ പറഞ്ഞോളൂ ആ അതെ ആ ഇന്ന് ഓപ്പൺ ആണ് നമുക്ക് രാവിലെ വെജും നോൺ വെജും ആയിട്ട് ആണുള്ളത് അപ്പം വെജ് ആണെങ്കിൽ ഇഡലി സാമ്പാർ ദോശ സാമ്പാർ ചമ്മന്തി ഉണ്ട് വിത്ത് ആണ് പിന്ന വട ഉണ്ട് നോൺ വെജ് ആണെങ്കിൽ പൊറോട്ടയും ആ ചിക്കൻ കറി ആ ഓക്കെ ഓക്കെ

അതെ അതെ ഫുഡ് ഓക്കെ ആണ് ആ നമ്മുടെ ഇഡലി ഇഡലി ആണോ ദോശ ആണോ ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നോക്കാം ഉണ്ട് ഉണ്ട് പാർക്കിങ്ങ് സൗകര്യമുണ്ട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് പറഞ്ഞാൽ മതി ഒന്നുങ്കിൽ അവരുടെ കീ കൊടുത്ത് കഴിഞ്ഞാൽ അവർ കൊണ്ട് പാർക്ക് ചെയ്തോളും അതെ അതെ പാഴ്സൽ ഒക്കെ ഓക്കെ ആണ് നമുക്ക് ആദ്യം നമുക്ക് ഗൂഗിൾ പേ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പേ ചെയ്താലും മതി ദോശ ഓരോ ഒരു ദോശയ്ക്ക് എട്ട് രൂപ വെച്ചിട്ട് ആ അത് അത് നമുക്ക് ശരിയാക്കാം എത്ര പിള്ളേരാണ് രണ്ട് പിള്ളേരോ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം ആ ഓക്കെ ശരി ശരി